നമ്മളെ നാട്ടിലെ ആളുകളൊക്കെ തിന്നുന്നത് നമ്മൾ സാധാ തിന്നുന്ന അരി ഭക്ഷണമാണ് അപ്പം ഈ അരി ഭക്ഷണം ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും കാരണം നമുക്ക് ഏത് ഭക്ഷണം കഴിച്ചാലും ഈ അരി ഭഷണം ഇല്ലെങ്കിൽ ഒരു ഒരു അന്നത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന ഒരു ഇതാണ് വരുന്നത് മനസിലേക്ക് തൃപ്തി വരില്ല അരി ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കേണ്ടത് അപ്പം ഈ പാടങ്ങളും തോടുകളുമൊക്കെ നമ്മൾ ഇങ്ങനെ നല്ല സംരക്ഷിച്ച് നിർത്തണം പിന്നെ അവിടെ വീടുകൾ അതേ മാതിരി വ്യവസായ ശാലകൾ പല വലിയ വലിയ പിന്നെ ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് നമ്മൾ തടയണം തടഞ്ഞില്ലെ പിന്നെ വരുന്ന നമ്മുടെ പിൻ തലമുറ ഇനി വരുന്ന ആളുകൾക്ക് പുതിയ തലമുറകൾക്ക് ഭക്ഷണം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാകും അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും വലിയ വില കൊടുത്ത് ആയിരിക്കും പിന്നെ നമ്മൾക്ക് ഭഷണമൊക്കെ വാങ്ങി കഴിക്കേണ്ടി വരിക അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും നമ്മുടെ സമൂഹത്തിന് ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണം നൽകണം എന്നിട്ട് അവർ അവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിച്ച് കൊണ്ട് നമ്മുടെ പാടങ്ങളും തോടുകളും വയൽ പിന്നെ നമ്മുടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും പിന്നെ അതിന് അതിന് നല്ല സഹായമൊക്കെ കൊടുത്ത് ഗവണ്മെൻ്റ് ഭാഗത്ത് നിന്നും നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നും വ്യക്തികളുടെ ഭാഗത്ത് നിന്നും ഒക്കെ നല്ല ഒരു പ്രോത്സാഹനം നൽകി അവരെ സഹായിച്ച് അവരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ നമുക്കും നമ്മൾക്ക് ശേഷം വരുന്ന തലമുറകൾക്കും എന്നും നമ്മളുടെ പരമ്പരാഗതമായ നെല്ല് ഭക്ഷണം നെല്ലിൽ നിന്ന് കിട്ടുന്ന അരി ഭക്ഷണം നമുക്ക് കഴിക്കാം പിന്നെ നമ്മൾ മഴക്കാലത്ത് ഇന്നേവരെ വെള്ളം തണ്ണീർ തടങ്ങളും കുളങ്ങളും തോടുകളുമൊക്കെ വൃത്തിയാക്കി അതിലേക്ക് ജലം സംഭരിച്ച് വയ്ക്കണം അപ്പോഴാണ് നമുക്ക് കൃഷി എപ്പോഴും കൃഷി നടത്തണമെങ്കിൽ വെള്ളം വേണം അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ നടത്താം പിന്നെ നമുക്ക് പ്രേത്യേകിച്ച് നമ്മുടെ ഭക്ഷണം അരി തന്നെയാണ് വേറെ എന്ത് ഇനി ഗോതമ്പ് ആയാലും പിന്നെ വേറെ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഒന്ന് നമുക്ക് തിന്നാം തിന്നാലും പറ്റുകയില്ല തിന്നാലും വിശപ്പ് ഒരു വയറ് നിറയുകയും ഇല്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വയലിനെ സംരക്ഷിച്ച് നിർത്തി അവരോടൊപ്പം ചേർന്ന് നമ്മളും അതിൽ പങ്കാളികളായി ജോലിയൊക്കെ ചെയ്ത് പിന്നേ അതിലേക്കുള്ള സഹായമൊക്കെ ചെയ്ത് പിന്നെ അതേമാതിരി മരങ്ങളും വൃക്ഷങ്ങളുമൊക്കെ നല്ലോണം സംരക്ഷിച്ച് നിർത്തിയാലെ ഉള്ളു മഴ ലഭിക്കുക മഴ ലഭിച്ചാൽ കൃഷിയുണ്ടാകുക അങ്ങനെ അവരോടൊപ്പം കൂടി നമ്മൾ അതിൽ പങ്കാളി ആയി മാറിയാലെ ഉള്ളു നമ്മൾക്കും നമ്മളുടെ സമൂഹത്തിനും ഇനി വരുന്ന തലമുറക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചേ മതിയാകൂ